ആ എന്ത് ആ നല്ല വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നു ആ കുഴപ്പം കുഴപ്പമില്ല കുഴപ്പമില്ല ഇപ്പം ഇത്തിരി മടുപ്പാണ് സാധനത്തിനൊക്കെ വിലക്കൂടുതൽ അല്ലേ അപ്പം അത് കാരണം ഇത്തിരി മേടിക്കാനായിട്ടൊക്കെ ആ പിന്നെ എന്തോക്കെ വെ തക്കാളിക്കൊക്കെ ഭയങ്കര വിലയാണ് വില ആ തരാം വില കുറയും എന്നൊരു തോന്നൽ അപ്പം കുറേശ്ശെ മേടിച്ചുകൊണ്ട് പോയാലും മതി ആ ഡെയിലി വന്ന് വാങ്ങിക്കാം അല്ലേ പിന്നെ മാക്സിമം കുറച്ചാണ് കൊടുക്കുന്നത് നമ്മൾ ഒരുപാട് ഇത്തിരി റേറ്റ് ഒക്കെ കുറച്ച് തന്നെയാണ് കൊടുക്കാറ് റുള്ളന്നത് ആ അര കിലോ തക്കാളി പിന്നെ ആ പിന്നെ ഏത്തയ്ക്ക അറുവത്തഞ്ച് രൂപയാണ് കിലോ ആ നാടൻ മുട്ട ആ മുട്ട ഏഴ് രൂപ

അതെ ആ ഉ ബിസ്കറ്റ് അത് എന്ത് ക്രീം ബിസ്കറ്റ് വേണോ ക്രീം എന്താണ് വെ വെ മതി അല്ലേ ആ ആ ആ പിന്നെ ആ ആ ആ അ ഞായറാഴ്ച്ച കടയുണ്ട് ഞായറാഴ്ച്ച ഉച്ച വരെ ഉണ്ട് കുഴപ്പം ഇല്ല ആ ഞായറാഴ്ച്ച ആവുമ്പം ഇത്തിരി കച്ചവടം ഉണ്ട് ആളുകൾ വരാറുണ്ട് അത് കാരണം ഞായറാഴ്ച്ച തുറക്കും ആ പിന്നെ അടുത്തുള്ളവരുടെ അടുത്തൊക്കെ പറയണം കേട്ടോ ഇവിടെ ഇത്തിരി വില കുറച്ചാണ് കൊടുക്കുന്നത് എന്നൊക്കെ പറയണേ ആ ആ വെച്ചേക്കാം വെച്ചേക്കാം വെച്ചേക്കാം മാക്സിമം നമ്മൾ വേ ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് എടുക്കാറുള്ളത് ആ അപ്പം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി നമ്മൾ ഇവിടുന്ന് വേണമെങ്കിൽ കൊടുത്തും വിടാം വേണമെങ്കിൽ ആ സാധനങ്ങളുടെ ലിസ്റ്റ് തന്നാൽ ആ അത് ഏത് ആ ആ കാ ആ ആ ആ കാൽ കിലോ ആ പിന്നെ ആ

ഒടിയൻ പയർ ഉണ്ട് അര കിലോ ആ

ആ കുഴപ്പം ഇല്ല കഴിഞ്ഞ ദിവസം കൊടുത്തുവിട്ട സാധനങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ആ പ കുഴപ്പമില്ല പച്ചക്കറി ഒക്കെ ആ സവാളയ്ക്ക് ഒരു ഇത്തിരി മഴയുടേതാണ് തണുപ്പ് അടിക്കുമ്പോൾ സവാളയ്ക്ക് അങ്ങനെ ച്ചി ഇത് ഉണ്ടാവുമല്ലോ കുഴപ്പമില്ല അത് ഇനിയിപ്പം അടുത്ത പ്രാവശ്യം വരുമ്പം അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അത് ക്ലിയർ ചെയ്തോളാം കുഴപ്പം ആ ആ ആ ആ ആ എന്തെങ്കിലും കുഴപ്പം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി സാധനത്തിന് എന്തെങ്കിലും നമ്മൾ എന്താണെന്ന് വെച്ചാൽ അത് ആ ആട്ടിയ വെളിച്ചെണ്ണ ഉണ്ട് ആ ആ ആ വെച്ചേക്കാം വെച്ചേക്കാം ശരി ആ ആ താങ്ക്സ് ആ ശരി ആ ബൈ